ആ അങ്ങനെ ആകുന്നില്ല അല്ലേ അപ്പോൾ രണ്ട് നേരം എടുക്കുന്നുണ്ടോ അതോ രാവിലെ മാത്രമേ ഉള്ളോ രണ്ട് നേരം എടുക്കുന്നുണ്ട് ആ അപ്പോൾ ആഹാരം കൺട്രോള് ചെയ്യണം നിങ്ങൾ മരുന്ന് കൊണ്ട് മാത്രം ഡയബറ്റിക് ഒരിക്കലും കൺട്രോൾ ആകുകയില്ല ആഹാരം ആണ് ആ സ വൈകിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം ഒന്നും കഴിക്കാതിരിക്കാൻ പാടില്ല ആ എന്തെങ്കിലും കഴിക്കാം എന്ന് ഉള്ളത് അല്ലാതെ പക്ഷേ മരുന്നും വേണം ആ ഇഞ്ചക്ഷൻ മരുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ വലിയ കൺട്രോൾ ആകുന്നില്ലെങ്കിൽ ഡോക്ടറെ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക

ആ എന്നാൽ നിങ്ങൾ വന്ന് നേരിട്ട് ഒരു ഡോക്ടറെ വന്ന് കാണുക ആ എന്നെ വന്ന് എന്നെ വന്ന് നേരിട്ട് കാണുക നേരിട്ട് കണ്ടിട്ട് നമുക്ക് എന്നാൽ ആദ്യം തൊട്ട് എല്ലാം ഒന്ന് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മരുന്നിന് കുറിക്കാം അല്ലേൽ പിന്നെയെ ഇപ്പോൾ കൺട്രോൾ ആകുന്നില്ലെന്ന് വരുകയില്ലെ അല്ലേൽ പിന്നെ എന്താ ചെയ്യുന്നെ നേരിട്ട് വന്ന് കാണുക ആ എന്നെ കാണുക ആ എൻ്റെ വീട് പാമ്പാടിലാ പാമ്പാടിയിൽ ഈ നമ്പരിൽ വിളിച്ചാൽ മതി അവിടെ ഒ പി ഉണ്ടേ അങ്ങ് വന്നാൽ മതിയേ ഒ പി വന്നാൽമതി വന്ന് കണ്ടോളു ആ ശരി